ഞാൻ കുറെ ആയി വിചാരിക്കുന്നു ഫോണ് മേടിക്കണമെന്ന് ഞാൻ ഇന്നലെ എന്നിട്ടൊരു ഫോണ് വാങ്ങി ഫോണു മേടിച്ചത് എന്ന് വെച്ചാൽ പേര് നത്തിങ് വൺ ഏതാന്ന് പേര് ഇപ്പം എല്ലാവരും ആ ഫോണാന്ന് മേടിക്കുക പോന്നെ എല്ലാവരും അതിനെ കുറിച്ച് നല്ലതെല്ലാം മാത്രം പറഞ്ഞ് പറഞ്ഞ് എൻ്റെ കൂട്ടുകാരൊക്കെ അത് മേടിച്ചിട്ടുണ്ട് നത്തിങ് ടു നത്തിങ് വണ്ണെ എല്ലാവരും മേടിക്കുന്നുണ്ടത് അപ്പം ഞാനുവൊന്ന് അതിന് ഇതൊക്കെ നോക്കി ആൾക്കാരെ പറയുന്നതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ സംഭവം റ്റ് ഞാൻ മേടിച്ച് നാൽപ്പതിനായിരം റുപ്പിക ആയത് സാധനം അടിപൊളിയാണ് എന്താ പറയാ കാണുമ്പൊഴൊക്കെ ഒരു ഐ ഫോണ് പോലക്കെ ഉണ്ട് കാണുമ്പോൾ ചതുരാകൃതീലക്കെ ആയിട്ട് അങ്ങനക്കെയാണ് ഉള്ളത് കൊള്ളാമത് സംഭവം പിന്നെ പുറകിൽ ഫോ ഫോണിൻ്റെ പുറകിലെന്ന് വെച്ചാൽ ഫുള്ള് ഒരു മിന്നി മിന്നി കളിക്കുന്ന ലൈറ്റ് ഉണ്ടാവൂലേ അതിങ്ങനെ ഓരോ ഇതായിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം അമ്മയാണെങ്കിൽ അമ്മേൻ്റെ അമ്മ വിളിക്കുമ്പോൾ മെസ്സേജയയ്ക്കുമ്പോൾ നമുക്ക് അറി വേഗം മനസ്സിലാകാൻ വേണ്ടീട്ട് ആ ആ ലൈറ്റ് നമുക്ക് അങ്ങനെ ആക്കി വെക്കാൻ പറ്റൂ ഓരോ രീതിയിൽ നമുക്കിഷ്ടമുള്ള പോലെ അങ്ങനൊക്കെ ഉള്ള സംവിധാനം ഉണ്ട് പിന്നെ ഫോട്ടോക്കെ എടുക്കാനാണെങ്കിൽ അടിപൊളിയാണ് കാണാൻ നല്ല ഒരു എന്താ പറയാ കാണാൻ നല്ല രസമുണ്ട് എടുത്തിട്ടോക്കെ സാധാരണ ക്യാമറ പോലൊന്നുവല്ല അടിപൊളിയാണ് അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ നല്ല മോൺ രാവിലെ ഒക്കെ എടുക്കുമ്പോൾ പിന്നേന്ന് വെച്ചാൽ പിന്നെ നമ്മൾ തുറക്കുമ്പോഴൊക്കെ വേഗത്ത് തുറക്കുന്നുണ്ട് ഈ ഫിംഗർ പ്രിൻറ്റും അതൊക്കെ ഉണ്ടാവുലോ അതൊക്കെ വേഗത്തിലാകുന്നുണ്ട് നീക്കുമ്പോൾ അങ്ങത്തെ ഒരു പ്രഷ്നം നിന്ന് പോക്കോ അങ്ങനത്തൊരു പ്രശ്നവുമില്ല സാധനം അടിപൊളിയാണ്